ഞാൻ ആദ്യമായി നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാണ് ഏഴാം ക്ലാസ്സിൽ ആയതിനാലും ഒരു മത്സരം ആയതിനാലും നീന്തുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു പേടിയും ഉൽകണ്ഠയും ഉണ്ടായിരുന്നു അങ്ങനെ പേടിയും ഉൽക്കണ്ഠയുമുണ്ടായപ്പോൾ ഞാൻ അതിനെ തരണം ചെയ്തത് ലോങ് ബ്രീത്തെടുത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അന്നെൻ്റെ നീന്തൽ പരിശീലകനാണ് ഈ ഒരു ടെക്നിക് എനിക്ക് പറഞ്ഞുതന്നത് മകനെ നിനക്ക് ഉൽകണ്ഠയുണ്ടോ പേടിയുണ്ടോ ഭയപ്പെടേണ്ട ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ശ്വസിക്കുക ശ്വാസം വിടുക ശ്വസിക്കുക ശ്വാസം വിടുക അങ്ങനെയാണ് ഞാനെൻ്റെ ഉൽക്കണ്ഠയെ മാറ്റിയത് പിന്നീടെൻ്റെ ഉൽകണ്ഠയും പേടിയും മാറിയത് ഞാൻ മത്സരങ്ങൾ പങ്കെടുത്ത് പങ്കെടുത്ത് പങ്കെടുത്ത് ഒരുപാട് മത്സരങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായി പങ്കെടുത്ത് പങ്കെടുത്ത് പങ്കെടുത്ത് എൻ്റെ നമ്മൾ പണ്ട് സ്റ്റേജ് ഫിയർ എന്നു പറയുന്നതുപോലെ സ്റ്റേജ് ഉൽക്കണ്ഠയെന്ന് പറയുന്നതുപോലെ നീന്തലിലെ ഉൽക്കണ്ഠ ഞാൻ മാറ്റി എടുത്തത് മത്സരങ്ങളിൽ പങ്കെടുത്ത് പങ്കെടുത്താണ് പിന്നീട് സമ്മാനങ്ങൾ നേടി നേടി എൻ്റെ പേടി പിന്നീട് ശക്തിയായി മാറി അങ്ങനെയാണ് ഞാനെൻ്റെ ഉൽക്കണ്ഠയെ മാറ്റിയെടുത്തത് ഇനിയും നീന്തലിൽ പങ്കെ ശീലമില്ലാത്ത എനിക്കിനി മുപ്പത്തൊന്ന് വയസുള്ളതിനാൽ എനിക്ക് ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ എനിക്ക് സാധിക്കണംമെന്ന് മത്സരിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ പ്രായം അതിനു സമ്മതിക്കില്ല നീന്തലിലെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് നീന്തുമ്പോൾ നമ്മൾ മറ്റു വ്യായാമങ്ങൾ ചെയ്യുന്നതുപോലെ അല്ല നമ്മുടെ ഫുൾ ബോഡിയും വർക്കായിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ബോഡിക്കും വ്യായാമം കിട്ടുന്ന ഒരേ ഒരു കളിയാണ് സോറി ഒരു ക്ഷമിക്കണം ഒരു മത്സര ഇനമാണ് നം ഈ പറഞ്ഞ നീന്തലെന്ന് പറയുന്നത് ആയതിനാൽ അതാണ് ഏറ്റവും വലിയ ഗുണം നമ്മുടെ ബോഡി എപ്പോഴും കാര്യക്ഷമമായും സിസ്റ്റമായിട്ടും ഇരുന്നുകൊള്ളും